ഇന്ത്യയിലെല്ലാത്തരത്തിലുമുള്ള ഗതാഗത സംവിധാനമുണ്ട് കരയിലൂടേം ജലത്തിലൂടേം വായൂലൂടേമുള്ള ഗതാഗത സഞ്ചാരമുണ്ട് ഇതിലേറ്റവും പോപ്പുലറായിട്ടുള്ളതും പൈസ കുറഞ്ഞതുമായ ഗതാഗത സംവിധാനമാണ് വെള്ളത്തിലൂടേം പിന്നിന്ത്യൻ റെയിൽവെയും ബ്രിട്ടീഷ്കാർ അന്ന് കൊണ്ടന്ന ഇന്ത്യൻ റെയിൽവേ ഇന്നൊരുപാട് സാധാരണക്കാർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യലെവിടെയും സഞ്ചരിക്കാൻ ഉപയുക്തമാണ് പക്ഷേ ട്രെയ്നിൽ കുറച്ചും കൂടി വൃത്തിയും സമയത്തിന്റെ കാര്യങ്ങളും ഇച്ചിരീങ്കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ റോഡിന്റവസ്ഥ ഇപ്പോൾ ഒരുപാട് റോഡ്കൾ നല്ല രീതീൽ നിർമ്മിച്ച് വരുന്നുണ്ടെങ്കിലും പല റോഡ്കളും നല്ല ക്വാളിറ്റിയായിട്ടുള്ള ടാറ് ചെയ്യേണ്ടീരിക്കുന്നു മഴക്കാലവാകുമ്പോൾ തന്നെ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഇതിനേറ്റവും ബെല്ല് ഇത് മെച്ചപ്പെടുത്തേണ്ടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വ പൂർണ്ണമായ ഉദ്യോഗസ്ഥരും മറ്റ് കാര്യം കാര്യങ്ങൾ ചെയ്യുന്നാൾക്കാരും കൂടുതൽ ഉത്തരവാദിത്വപരമായിട്ട് പെരുമാറണം ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകണം